ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒൻപത് ലക്ഷത്തി ഏഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴുപത്തി ഒൻപത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒൻപത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്